ഏഴ് ഏഴ് രണ്ടായിരത്തി ഒന്ന് എട്ട് മൂന്ന് രണ്ടായിരത്തി രണ്ട് ഒമ്പത് നാല് രണ്ടായിരത്തി ആറ് ഏഴ് നാല് രണ്ടായിരത്തി പതിനൊന്ന് എട്ട് എട്ട് രണ്ടായിരത്തി പതിനാറ് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി പതിമൂന്ന്